എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ബെഡ്ഷീറ്റ് ആയിരുന്നു ഞാനൊരു മൂന്നുനാല് ദിവസം മുന്നെയാണ് ഞാൻ ആ ബെഡ്ഷീറ്റ് മേടിച്ചത് അത് ഓൺലൈനിൽ നിന്ന് ആമസോൺ വഴി മേടിച്ച പ്രൊഡക്റ്റ് ആണ് അപ്പം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യാനും അതായത് ഞാൻ പോളിസ്റ്റർ ആണ് മേടിച്ചത് കോട്ടൺ അല്ല മേടിച്ചത് പക്ഷേ കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് വന്നപ്പോൾ പോളിസ്റ്റർ ആണ് പിന്നെ ഞാന് അത് റിട്ടേൺ ഒന്നും ചെയ്യാൻ നോക്കിയില്ല പിന്നെ അതിന് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഒന്ന് പൊതുവെ പോളിസ്റ്റർ അല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് രണ്ടു മൂന്ന് തവണ യൂസ് ചെയ്തുകഴിഞ്ഞാൽ പിന്നെ അതിലൊരു കായ് പോലത്തെ ഒരു സാധനം പൊന്താൻ തുടങ്ങും പിന്നെ നമ്മൾ ഈ കാലൊക്കെ പൊട്ടിയവരൊക്കെ ആണെങ്കിൽ അതിലിങ്ങനെ അതായത് നമ്മളിങ്ങനെ കാലിങ്ങനെ വലിക്കുമ്പം അതിലിങ്ങനെ കാലിലിങ്ങനെ പിടിച്ച് നിൽക്കും പിടിച്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും അപ്പം അത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയിത് അത്യാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതായത് അധിക നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് ഉണങ്ങി കിട്ടും അതുപോലെ മ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കുറച്ച് സ്ഥലം മതി കുറച്ച് കട്ടിയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കൂടുതൽ സ്ഥലം വേണം അപ്പോൾ അതൊക്കെ ഇതിൻ്റെയൊരു പോസിറ്റീവ് ആണ്